മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ പണ്ടൊക്കെ ഈ പിന്നെ പർദ്ദയും ബുർക്കയും ഒക്കെ ധരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പക്ഷെ ഇപ്പം കാലം മാ മാറി വരുന്നത് ഓടു കൂടി പുതിയ പുതിയ തലമുറകൾ വരുന്നതോടുകൂടി അവർ ഈ രീതിന്ന് കുറച്ച് മുന്നോട്ടായിട്ട് നമ്മൾടെ ഫേഷൻ ഡ്രെസ്സസ് അണിയുന്നതാണ് ഇപ്പോൾ കാണുന്നത് വരുന്നത് അവരുടെ പരമ്പരാഗത രീതിയിലുള്ള അവരുടെ ഡ്രെസ്സസ് അവർ കുറെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അധികം മോഡേൺ ആയിട്ടുള്ള കുട്ടികൽ പുതിയ തലമുറകളിലെ കുട്ടികൾ മോഡേൺ ഡ്രെസ്സസ്സെന്നെയാണ് എടുക്കുന്നത് അതവരുടെ ഐക്യത്തിനും അഖണ്ഡതക്കും എങ്ങനാന്ന് വെച്ചാൽ ഡ്രസ്സ് ധാരണം മാത്രം ഒരൈക്യം കൊണ്ട് വരുന്നു എന്നുള്ള ഇല്ല അത് ഒരു അവരടൊരു ഒരു അവരുടെ അനുചാരക എന്താ പറയാ അവരുടെ സ്വഭാവമൊക്കെ മൂടി വെയ്ക്കുന്ന രീതിയിലുള്ള ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഡ്രസ്സ് അഖണ്ഡതക്കും ഐക്യത്തിനും സഹായിക്കോന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം